ആ എൻ്റെ പേര് അഫ്സി ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണേ വിളിക്കുന്നത് ഞാനൊരു കാർ എടുക്കുന്നുണ്ട് അപ്പം അതിന് ലോണിന് വേണ്ടിയിട്ടായിരുന്നേ ആ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഒൻപത് ലക്ഷത്തിൻ്റെ ഉണ്ട് ആ ഓക്കെ ഞാൻ ഇപ്പോൾ അവിടെ വന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം വിചാരിച്ചിട്ടാണ് അങ്ങനെ ഏതാണ് എടുക്കേണ്ടതെന്ന് കണ്ട് വെച്ചിട്ടൊന്നും ഇല്ല ആ അവിടെ വന്നിട്ട് തീരുമാനിക്കാം എന്നാൽ ആ അതിനൊരു സർട്ടിഫികറ്റ് വേണം അല്ലേ ആ പാൻ കാർഡ് ഉണ്ട് ആ നാല് ഫോട്ടോസ് വേണമല്ലേ ആ ആ എന്റെ പേരിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു

ആ ഓക്കെ ഓക്കെ ആ ആ രണ്ടുമൂന്ന് ദിവസം വേണമല്ലേ റെഡി ആവണമെങ്കിൽ

ആ ഓക്കെ ഓക്കെ ആ ഇതിപ്പം എവിടെയായിട്ടാണ് ലൊക്കേഷൻ എവിടെയായിട്ടാണ് കോഴിക്കോട് തന്നെയാണല്ലേ ആ ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അങ്ങോട്ട് നേരിട്ട് വരാം കേട്ടോ

ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ തന്നെ പോയിട്ട് നോക്കാം കേട്ടോ